ഹലോ ആരാണ്

ആ കരിമീൻ ഉണ്ട് അറുന്നൂറ്റി അമ്പത്

പിന്നെ ഞങ്ങൾ ഇപ്പം ആ വീശി പിടിച്ച നല്ല പെടപ്പൻ കരിമീൻ അതെ ഞങ്ങൾ വീശിയ അതെ ഞങ്ങൾ ആറ്റിൽ നിന്ന് ഞങ്ങൾ വീശി പിടിച്ച കരിമീനാണ് വലിയ കരിമീനാണ് പെടപ്പൻ കരിമീൻ അതെ അല്ല അല്ല വലിയ കരിമീനാണ് പപ്പാസ് വച്ച് ചെറുതാവുമ്പോൾ ഇല്ല ഇല്ല ഞങ്ങൾ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് നിങ്ങൾക്ക് വലുതാണോ വലുത് വേണമെങ്കിൽ വലുതു തരും ചെറുത് വേണേ ചെറുത് തരും കരിമീൻ വിലയെല്ലാം ഒരു പോലെ തന്നെയാണ് വില അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് ആ കുറക്കാനൊന്നും പറ്റത്തില്ല എന്ന് വച്ചാൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ കരിമീൻ കറി കൂട്ടേണ്ട ആ നിങ്ങളേ ഇതിപ്പം അറുന്നൂറിന് തരത്തില്ല അത് ഞങ്ങൾ ഇത് വരുത്തും അതൊന്നുമല്ല ഞങ്ങളുടെ വാതിക്കൽ നിന്ന് ഞങ്ങൾ വല വീശി നല്ല ഫ്രഷായിട്ട് പിടിച്ചു തരുന്ന മീനാണ് ഇത് ഫ്രീസറിൽ വച്ച മീനൊന്നും അല്ല ആ നിങ്ങൾ കഴിച്ചോളൂനല്ല പപ്പാസ് വയ്ക്കാൻ അടിപൊളിയാണ് അല്ല ആ ആ വെട്ടിയൊക്കെ നിങ്ങൾ വെട്ടിക്കോണം കറി വച്ചോണം ആ വെട്ടി തരണമെങ്കിൽ ചാർജ് വേറെ തരണം ഞങ്ങൾ ചെത്തി നല്ല വെള്ളയാക്കി തരും അതിന് ചിലപ്പോൾ ഒരു കിലോ കരിമീൻ ആ കരിമീൻ ഒരു കിലോയുടെ കരിമീൻ ഞങ്ങൾ വെട്ടി തരികയാണെങ്കിൽ എഴുപത്തി അഞ്ച് രൂപ ഞങ്ങൾക്ക് തരണം ആ പത്തു രൂയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി മേടിച്ചോ നിങ്ങൾ അവിടെ പത്ത് രൂപയ്ക്ക് മേടിച്ചോ ആ അങ്ങനെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മേടിക്കണം വലിയ കരിമീൻ തൂക്കം അനുസരിച്ചാണ് എണ്ണം വരുന്ന ആ ആ വറക്കാൻ കൊള്ളാം പപ്പാസ് ചെയ്യാൻ അടിപൊളിയാണ് ഉം പപ്പാസ് ദാ കരിമീൻ പപ്പാസും പാലപ്പം കൂടെ കഴിച്ചോ നിങ്ങൾ നല്ലതായിരിക്കും ഉം ഫ്രഷ് മീൻ അല്ലേ ഉം ആ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോ ഒരു കിലോ അത് വെയിറ്റ് അനുസരിച്ചിരിക്കും വലുത് വേണോ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് എണ്ണമൊക്കെ ഒരു കിലോ തൂങ്ങും ഞങ്ങൾ വീശി പിടിക്കുന്ന മീനല്ലേ ഫ്രഷാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം

ഏഹ് ആ ഇടത്തരം ഇല്ല അഞ്ഞൂറിനൊന്നും തരത്തില്ല കരിമീൻ വേണോ അറുന്നൂറ്റി അമ്പത് തന്നെ തരണം ആ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്

രണ്ടെണ്ണം വലുതാണ് അപ്പോൾ ചെറുതുണ്ട് നാല് എണ്ണം വരുന്നതുണ്ട് ഒരു കിലോയുടെ അത് മതിയോ ആ ആ നാല് എണ്ണമുള്ള ആ നാല് എണ്ണം ഒരു കിലോ തൂങ്ങുന്നത് ഉണ്ട് ആ പിന്നെ ആ ഓക്കെ ശരി എന്നാൽ ഓക്കെ